ഞാൻ ഇഷ ആണ് കേട്ടോ സംസാരിക്കുന്നത് എങ്ങനെയാണ് പത്ത് ദിവസത്തെയൊ ഓക്കെ അപ്പം പിക്കപ്പ് ഡ്രോപ്പ് സ്റ്റേ എല്ലാം വരും പത്ത് ദിവസം ഓക്കെ എവിടെ നിന്നാണ് പിന്നെ വരുന്നത് എവിടെ നിന്നാണ് പിക്ക് ചെയ്യേണ്ടത് എന്നൊക്കെ പറയുമായിരുന്നെങ്കിൽ ഓക്കെ അവിടെ വന്ന് പിക്ക് ചെയ്യും എവിടെയാണ് പോവാനുള്ളത് വയനാടാണോ അതോ വേറെ എവിടെയെങ്കിലും ജില്ലകൾ കാണാൻ ആഗ്രഹിക്കുന്നുണ്ടോ അതെ അപ്പം ആഹ് ട്രിവാൻട്രത്ത് വന്നിട്ടുണ്ടെങ്കിൽ അവിടെ വന്ന് പിക്ക് ചെയാം അവിടെ നിന്ന് നേരെ ഇങ്ങോട്ടേയ്ക്ക് വരാം ഇവിടെ വന്നിട്ട് ഇവിടെ സ്റ്റേ ചെയ്തിട്ട് പിറ്റേ ദിവസംതൊട്ടിട്ട് പോകാനുള്ള സ്ഥലങ്ങൾ ഒക്കെ കവർ ചെയ്യാം ഇഷ്ടംപോലെ സ്ഥലങ്ങളുണ്ട് സ്റ്റേ അനുസരിച്ച് നമുക്ക് എങ്ങനെയാണെന്നു വച്ചാൽ പോവാം ഇവിടെ ലക്കിടിയൊരു പിന്നെ റിസോർട്ടുണ്ട് അവിടെ നിന്ന് ആണെങ്കിൽ നമുക്ക് എന്നൂർ പിന്നേ ലക്കിടി വ്യൂ പോയിൻ്റ് കാണാം അന്നുതന്നെ പോയിട്ട് എന്നൂർ പോവാം പിന്നെ പൂക്കോട് ലെയ്ക്കിൽ പോവാം അതുകഴിഞ്ഞിട്ട് വേണമെങ്കിൽ പടിഞ്ഞാറത്തറ ഡാമിൽ പോവാം ഫസ്റ്റ് ഡേ പിന്നെയുള്ള ഓരോ ദിവസങ്ങള് അറേഞ്ച് ചെയ്യാം ഓരോ സ്ഥലങ്ങളുണ്ടല്ലോ ഇഷ്ടംപോലെ സ്ഥലങ്ങളുണ്ട് കാണാൻ വേണ്ടിയിട്ട് അങ്ങനെ ചെയ്യാം കാരാപ്പുഴ ഡാമുണ്ട് സ്റ്റേ ചെയ്യാനാണോ സ്റ്റേ നല്ലൊരു റിസോർട്ട് നോക്കിയിട്ട് അവിടെ സ്റ്റേ ചെയ്യാം സ്റ്റേ അവിടെ അറേഞ്ച് ചെയ്യാം ഓഹ് അത് നമ്മുടെ ഇത് ഈ പാക്കേജിൽപ്പെടുന്ന കാര്യമാണല്ലോ അതായത് പിക്കപ്പ് തൊട്ട് ലാസ്റ്റ് ഡ്രോപ്പ് വരെ പാക്കേജിൽ ഉൾപ്പെടുത്തുന്ന കാര്യമാണ് അപ്പം അതിനനുസരിച്ച് പാക്കേജിൽ വരുന്നതാണ് എല്ലാകാര്യവും ഇന്ന ഓരോ ദിവസവും ഓരോ എവിടെ പോകണം എന്നുള്ള അറേഞ്ച്മെൻ്റ്സും ഇന്ന സ്ഥലത്ത് പോകാമെന്നുള്ളതൊക്കെ പാക്കേജ് ഇപ്പം പത്ത് ദിവസത്തേക്കല്ലേ വരുന്നത് ഒരു എൺപതിനായിരം രൂപേൻ്റെ ഒക്കെ മേലെയാവും പൂക്കോട് ഇപ്പം കിഡ്സ് എങ്ങാനും ഉണ്ടെങ്കിൽ അവർക്ക് കുറേ നേരം കളിക്കാം പിന്നെ ബോട്ടിങ്ങുണ്ട് ഫാമിലി ആയിട്ടല്ലെ വരുന്നത് ഫാമിലി ആയിട്ടല്ലെ വരുന്നത് പൂക്കോടെന്ന് വച്ചിട്ടുണ്ടെങ്കിൽ അവിടെ മക്കൾക്ക് കളിക്കാൻ കുറേ സ്ഥലങ്ങളുണ്ട് കളിക്കാം അവർക്ക് പിന്നെ പിന്നെ തടാകം ഉള്ളതുകൊണ്ട് ബോട്ടിങ്ങും ഉണ്ട് പിന്നെ എന്നൂർ പോകുകയാണെന്ന് വെച്ചാൽ അതൊരു ട്രൈബൽ ട്രൈബൽ ഒരു ഇതാണ് അവരുടെ കാലത്തെ ഇതൊക്കെ അപ്പം അവിടത്തെ ഫുഡ്ഡും അതൊരു മലയുടെ മേലെ ഉള്ളൊരു ഇതാണ് നല്ല രസമാണ് അതിൻ്റെ വ്യൂ പൊയിൻ്റിലോക്കെ പോയാൽ വളരെ നല്ലൊരു ഇതിൽ ഉണ്ടാക്കിയിരിക്കുന്നത് കാണാനും ഉണ്ട് പിന്നെ എന്ത് വണ്ടിയിലാണ് നിങ്ങള് പോകാൻ ആഗ്രഹിക്കുന്നത് എത്ര പേരുണ്ടെന്നൊക്കെ അറിഞ്ഞാൽ അതിനനുസരിച്ച് അറേഞ്ച് ചെയ്യാൻ പറ്റുമായിരുന്നു

ഒരു വണ്ടി വേണോ അതോ നിങ്ങൾ രണ്ട് വണ്ടിയിലാണോ പോകുവാൻ ചിലവർ വേണമെങ്കിൽ പറയും മൂന്നുപേരെ ഒരു കാറിലായിട്ടുതന്നെ മതിയെന്ന് പറയും കാർ അല്ലെങ്കിൽ ഇന്നോവയോ ട്രാവല്ലറോ അങ്ങനെ എന്തു വേണമെങ്കിലും നിങ്ങളുടെ ഇഷ്ടത്തിന് പറഞ്ഞാൾ അതിനനുസരിച്ച് അറേഞ്ച് ചെയ്യാമായിരുന്നു ഓക്കെ കാർ അറേഞ്ച് ചെയ്യാം ഞങ്ങളെ ഡേറ്റും കാര്യങ്ങളൊക്കെ ഫിക്സ് ചെയ്തിട്ട് പറഞ്ഞാൽ മതി ഇവിടെ നിന്ന് പിന്നെ പിക്ക് ചെയ്യാൻ ആൾക്കാര് അങ്ങോട്ട് വന്നുകൊള്ളും ഇവിടെ ഒരു പത്ത് പതിനൊന്നെണ്ണമുണ്ട് ട്രക്കിങ്ങോ ട്രക്കിങ്ങ് ഉണ്ട് ഇല്ല ഇല്ല തൊള്ളായിരം കണ്ടി ഉണ്ട് പിന്നെ ഹൃദയതടാകമില്ലേ അതൊരു ട്രക്കിങ്ങ് സ്പേസ് ആണ് നമുക്ക് അവിടെപ്പോയി ട്രക്കിങ്ങ് ചെയ്യാം അലോവിഡ് ആണ് കേട്ടൊ തൊള്ളായിരം കണ്ടി ഒക്കെ അലോവിഡ് ആണ് ഇതിപ്പോൾ നമ്മളൊന്ന് ജസ്റ്റ് വിളിച്ച് നോക്കിയാൽ അറിയാം ഓക്കെ താങ്ക് യു